പ്രാദേശികമായി നമുക്ക് കിട്ടുന്നത് എല്ലാം ബി എസ് എൻ എൽ വോഡഫോൺ ഐഡിയ എയർടെൽ ജിയോ ഇത് ഇതാണ് എല്ലാവിടെയും കിട്ടുന്നതും എല്ലാവിടെയും ഉള്ളതും എല്ലാവിടെയും നെറ്റ് വർക്കും ഉള്ളത് എല്ലാ കണക്ഷൻസും ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് വോഡഫോൺ മാത്രമാണ് വോഡഫോൺ രണ്ട് സിമ്മുണ്ട് ബാക്കി ഇൻ്റർനെറ്റ് സേവനത്തിനും ഈ പറഞ്ഞതു പോലെത്തന്നെ ഈ മൊബൈൽ കണക്ഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറെ പ്രാദേശികമായിട്ടുള്ള ഒരു നെറ്റ് വർക്ക്സും യൂസ് ചെയ്യുന്നില്ല